കോഴി ഫാം നടത്തുന്ന ചേച്ചിയല്ലേ ചേച്ചി അവടെ വന്നു കോഴിയെ മേടിക്കാനാണ് സാധിക്കുകയുള്ളൂ അതൊ ഹോം ഡെലിവെറിയൊക്കെ നടത്തുന്നുണ്ടോ ആ അപ്പം കൂടുതലുണ്ടെങ്കിൽ മാത്രമേ അപ്പം വീട്ടിൽ നിന്ന് വന്നു വാങ്ങിക്കാനായിട്ട് ആളുള്ളപ്പം വീട്ടിൽ ആ അപ്പം കോഴിയ്ക്ക് എത്ര രൂപയാണ് വില കിലോയ്ക്ക്

ആ അപ്പം കൂടുതൽ തൂക്കം കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ കുറവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ

ആ ഹാ അപ്പം നിങ്ങളെ അവിടെ വന്നു അവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ഫാമിൽ നിന്ന് അന്നേരം പിടിച്ചു ഞങ്ങൾക്ക് ഡ്രസ് ചെയ്തു തരികയാണോ അതോ ഫ്രിഡ്ജിലൊക്കെ വച്ചിരിക്കുന്ന ഇതൊക്കെയാണോ എടുത്ത് തരുന്നത് ആ അപ്പം നമ്മൾ പറയുന്നത് അനുസരിച്ചു കോഴി കട്ട് ചെയ്തു തരും അല്ലേ വറക്കാനോ അല്ലെങ്കിൽ ആ ആ ഇപ്പോ ഫ്രയ് അല്ലെങ്കിൽ നമുക്ക് ചുട്ട് എടുക്കുകയല്ലേ അങ്ങനെയൊക്കെ അതിനൊക്കെ ആവശ്യത്തിനൊക്കെ നിങ്ങൾ ചെയ്തു തരുമല്ലോ അല്ലേ ഫ്രൈയ് ചെയ്തു തരുമല്ലേ ഞാൻ എൻ്റെ അഡ്രെസ്സ് പറഞ്ഞു തരാം അപ്പം എനിക്ക് ആ അഡ്രെസ്സിൽ ചേച്ചിക്ക് സ്റ്റാഫ്ഫുണ്ടെങ്കിൽ ഒന്നെത്തിച്ചു തരുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരിക്കും

ആ അപ്പം എൻ്റെ ഫോൺ നമ്പറും തരാം ഞാന് ഒന്ന് ഞാൻ ഇച്ചിരെ ദൂരെയാണ് അപ്പം അങ്ങോട്ട് എത്തിച്ചു വണ്ടി പറഞ്ഞു വിടുമോ അങ്ങനെ എന്തെങ്കിലും വേണോ ആ മതി അല്ലെ അപ്പം ഞാൻ അത് വാട്സാപ്പിൽ ഇട്ട് തന്നേക്കാം ആ പൈസ ഹോം ആ ആ അപ്പോൾ അപ്പോൾ ഞാൻ അക്കൌണ്ടിലേക്ക് പൈസ ചെയ്തേക്കാം ക്കെ ശരി എന്നാൽ